ഇപ്പോൾ എൻ്റെ അറിവിൽ പല രീതിയിലുള്ള പദ്ധതികൾ സർക്കാർ കൈക്കൊണ്ട് വരുന്നുണ്ട് എന്താണ് പറയുക ഇപ്പം കേ ഫോൺ പദ്ധതി കേ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും നെറ്റ് ഉറപ്പാക്കുക ഇൻറർനെറ്റ് ഉറപ്പാക്കുക അങ്ങനത്തെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കെന്ന് പറഞ്ഞാൽ ടൗണുകളിൽ ആണ് ഇപ്പം ആദ്യം കേന്ദ്രീകരിച്ചിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ചില വീട് വീടുകളിലൊക്കെ കേ ഫോൺ പദ്ധതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മള ഇൻസ്റ്റാളേഷൻ ഒക്കെ ഫ്രീ ആണ് അതിന്റെ മാസം റെൻറ്റ് മാത്രം കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എല്ലാ സ എല്ലാ ആൾക്കാർക്കും ഇൻറർനെറ്റ് ഉപയോ ഉപയോഗപ്രദമാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്തുവരുന്നത് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല രീതിയിലുള്ള പദ്ധതികളുണ്ട് അതായത് വീട് വയ്ക്കുക വീട് ദാനം നൽകുക ഈ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്ത് വരുന്നത് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ആൾക്കാർ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം